ഒരു ഞാൻ വരുത്തുന്നതേ ദീപികയാണ് ദീപിക പത്രത്തിൽ സാമൂഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും ആരെങ്കിലും ഒക്കെ എഴുതാറുണ്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കുകയും ഇത് ഇവർ ചെയ്യുന്നതൊക്കെ ഇന്ന് എഴുതാറുണ്ട് ഞാൻ ചിലപ്പോളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് പിന്നെ ഞാനിപ്പോൾ വിദ്യാഭ്യാസരംഗത്തുനിന്ന് മാറിനിൽക്കുന്ന ആളാണ് ഞാൻ ടീച്ചർ ആയിരുന്നു പക്ഷേ ഇപ്പം ഒരു ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നൊന്നും ഇല്ല അതുകൊണ്ടാ വിദ്യാഭ്യാസം പിന്നെ ഇവിടെ അതുതന്നെയുമല്ല ഞാൻ നാട്ടിൽ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പുറംരാജ്യങ്ങളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അവിടുന്നും ഇവിടുന്നും ഒക്കെ കേൾക്കുന്നത് അനുസരിച്ച് പത്രത്തിൽ വരുന്ന ചില ഇൻട്രസ്റ്റിങ്ങ് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചിലരെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എൻ്റെ സബ്ജക്റ്റ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ അതൊക്കെ വായിച്ചു നോക്കാറുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് ഞാൻ എന്നാലും പിന്നെ ഈ ദീപിക പത്രത്തിലെ മിക്കവാറും എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കും പറയാൻ ഉള്ളതാണെങ്കിൽ അത് കുട്ടികളെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആണെങ്കിലും അതിനെക്കുറിച്ച് ഒക്കെ എപ്പോഴും അവർ ആർട്ടിക്ക്ൾ ഒക്കെ എഴുതാറുണ്ട് നല്ല നല്ല ആർട്ടിക്ക്ൾസ് ഒക്കെ എഴുതാറുണ്ട് നല്ല നല്ല ആർട്ടിക്കിൾ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ വായിക്കാറുണ്ട് പിന്നെ കുട്ടികൾക്ക് കൃത്യമായി മാർഗനിർദേശം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഞാനിപ്പോൾ ഞങ്ങൾ റിട്ടേഡ് ലൈഫ് ആണ് മക്കളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല കൊച്ചുമക്കളും കൂടെയില്ല അത്കൊണ്ട് പിന്നെ ഒരു കൊച്ചുമക്കളൊക്കെ ഉള്ളവരെ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്ക് പഠിത്തത്തിൽ എന്തെങ്കിലും ഒക്കെ ഡിഫിക്കൽട്ടീസ് അല്ല എന്തെങ്കിലും ഒക്കെ പ്രശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ അതിനെ അതിനെ നേരിടാമെന്നോ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പിള്ളേരോടും മക്കളോട് കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞുകൊടുക്കാറുണ്ട് എൻ്റെ ഇപ്പോളെനിക്ക് പറഞ്ഞുകൊടുക്കേണ്ടത് ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ എറ്റവും ഇളയ കൊച്ചുമകൾ അവൾ ഇപ്പോൾ എയിറ്റ്ത് സ്റ്റാൻഡേഡിൽ പഠിക്കുന്നു അവൾ പഠിക്കാനൊക്കെ ഇച്ചരെ മോശമാണ് അപ്പോൾ ചെല്ലുമ്പോഴൊക്കെയും പഠിത്ത സംബന്ധമായത് പക്ഷേ ചോദിക്കാറുണ്ടെങ്കിലും അവൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല എങ്കിലും ഞാൻ അവളെ എൻകറേജ് ചെയ്യാറുണ്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ അങ്ങനെയൊക്കെയേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല